ഞാനൊരു പാട്ട് പാട്ടുപഠിക്കാൻ പോവുന്നത് നല്ല രീതിയിൽ പാടാനറിയാവുന്ന നല്ലൊരു വിദ്യ പാട്ടിനെക്കുറിച്ച് നല്ല രീതിയില് അറിവുള്ള ഒരു ഗായകന്റെയടുത്തു ചെന്ന് അല്ലേ ഗായികയുടെ അടുത്തുചെന്ന് പഠിക്കാനാണെൻ്റെയേറ്റവും വലിയൊരാഗ്രഹം അവരോടൊപ്പം തന്നെ പഠിച്ച് അവരുതന്നെ പഠിപ്പിച്ച് അവരോടൊപ്പം തന്നെ പാടുക എന്നുള്ളത് എൻ്റെയൊരാഗ്രഹമാണ് ഏറ്റവും കൂടുതല് മലയാളം പാട്ട് പാടുക അതിൽ നമ്മള് ആ ഒരു നമ്മളാ ഒരു കലേനെ കൂടുതലും പ്രോത്സാഹിപ്പിക്കാനും അതിനോട് കൂടുതലും താൽപ്പര്യമെടുത്താൽ മാത്രമേ നമ്മളത് പഠിക്കൂ അതിനാ കൂടുതല് താൽപ്പര്യമെടുക്കുകയും പഠിക്കുകയും കൂടെ ചെയ്യണം അതുമാത്രമല്ല ഗാനാലാ ഇപ്പോഴൊരു സ്റ്റേജ് പ്രോഗ്രാമില് നമക്കൊരു പാടാനവസരം കിട്ടിയാലൊരു മടികൂടാതെ നമ്മള് പോയി പാടുക പാടിയതിനുശേഷം അത് കോ നല്ല പാട്ടുകാരുടെ ഇപ്പോള് നമ്മുടെ കെ എസ് ചിത്ര ഗാ സുജാത സുജാത അങ്ങനെ ഗായകരൂടെ പാടാനും വൽ ഒരവസരം കിട്ടിയാലും ഞാനത് മുന്നോട്ട് തന്നെ മുമ്പോട്ട് തന്നെ കൊണ്ടുപോവും ഏതാവെച്ച് കഴിഞ്ഞാല് പാട്ടിൻ്റെ രീതികള് മനസിലാക്കുക അതിൻ്റെ എ ടു സെഡെല്ലാം പഠിച്ചെടുക്കുക അതൊക്കെ നല്ല നല്ല പാട്ട് പാടാനറിയാവുന്നവരുടെ അടുത്തുചെന്ന് വിദ്യാ പഠിച്ച് അവരോടൊപ്പം തന്നെ കൂടി പാടാനുള്ള അവസരം അവരട്ത്ത് പോയി പഠിക്കുക അതിനോട് കൂടുതലും താല്പര്യമുണ്ടായാൽ മാത്രമേ നമ്മളത് പഠിച്ചെടുക്കുകയുള്ളൂ അതിനോട് കൂടുതലും താല്പര്യം നമുക്ക് ഉണ്ടാകണം അതെന്നും ആ താല്പര്യത്തോടുകൂടി പോയാല് മാത്രമേ നമ്മള് പഠിക്കുകയും ചെയ്യുകയുള്ളൂ പിന്നെ ആദ്യമേ നമ്മള് നല്ലൊരു പ്രോഗ്രാം കിട്ടിയാൽ നമ്മള് നല്ലൊരു നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ നമ്മള് മുതിർന്നവരെ പാടിക്കേൾപ്പിക്കാനായാലും ഒരു പ്രോ നമ്മുടെ പള്ളികളിലെല്ലാം എവിടെ ചെന്നാല് നമക്ക് പാടാനറിയാമോ ആ എനിക്ക് പാടാനറിയാം എവിടാ പഠിച്ചതെന്ന് ചോദിച്ചാല് ഇന്നയിടത്താണെന്ന് ഇന്നയാളുടെ കൂടെയാണ് പഠിച്ചത് ഇന്നാരാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞാല് നമ്മള്ക്കതൊരു നമുക്കൊരു നല്ലൊരു മാർഗമാണ് കിട്ടുന്നെ അതുകൊണ്ട് ആ വിദ്യയെ നല്ല രീതിയില് പഠിച്ചെടുക്കുക എന്നുള്ളതേയുള്ളൂ